നമസ്കാരം എൻറ്റെ പേര് തോമസ് എന്നാണ് എൻറ്റെ മകൻറ്റെ ഒരു ജനന രേഖയുടെ ഒരു ഒരു തീരുത്തലിനു വേണ്ടിയാണ് ഞാൻ വന്നത് എൻറ്റെ മകന് ഞങ്ങളതിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എൻറ്റെ മകൻറ്റെ ജനിച്ചതവൻ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ ഇതിനകത്ത് കിടക്കുന്നത് അമൽ ജ്യോതി ഹോസ്പിറ്റലാണ് പക്ഷേ അത് എങ്ങനെ വന്നൂ എന്നുള്ളതാണ് അതൊരു ചെറിയൊരു തിരുത്തലിനു വേണ്ടിയാണ് ഞാനവിടുന്ന് ഹോസ്പ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ റെഫറൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് നിങ്ങളിവിടെ പ്രിൻറ്റിങ് ചെയ്ത വഴിക്കെങ്ങാണ്ട് പറ്റിയ പ്രശ്നമാണ് അതു കൊണ്ട് നിങ്ങളത് മനസ്സിലാ മനസ്സിലാക്കിയിട്ട് എത്രയും വേഗം തന്നെ എനിക്കൊരു പരിഹാരം അതിനു വേണ്ടി തരിക കാരണം എൻറ്റെ മുമ്പോട്ടെൻറ്റെ മകൻറ്റെ മുമ്പോട്ടുള്ള ഭാവിക്ക് അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ബെർത്ത് സർട്ടിഫിക്കറ്റ് എന്ന ജനന രേഖ എന്നു പറയുന്നത് അതു കൊണ്ട് അതിനകത്ത് ഈ ജനിച്ച ഹോസ്പിറ്റലിൻ്റെ പേര് മാറി കിടക്കുകയെന്നുള്ളത് അതെന്നേക്കും അവന് വലിയൊരു ഒരു ബാധ്യത തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടവനനുഭവിക്കേണ്ടി വരും അതു കൊണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത വണ്ണം നിങ്ങളത്രയും വേഗം തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് അപേക്ഷിക്കുകയാണ് അവൻറ്റെ ഞാനതിനുള്ള അത് സംബന്ധിച്ചുള്ള രേഖകൾ ഞാനിവിടെ സബ്മിറ്റ് ചെയ്യുകയാണ് നിങ്ങളത് വേണ്ട വണ്ണം പരിശോധിച്ചതിനു ശേഷം ഒരു ഉത്തമമായ ഒരു പരിഹാരം തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു